എനിക്ക് രാവിലെ മുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഓരോ കാഴ്ചകള് ഇങ്ങനെ വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ പുഴയും കടലും എല്ലാം ഇങ്ങനെ പോകുന്ന പോക്കിൽ പല ഇതും കണ്ടുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ടാണ് പിന്നെ പല കാഴ്ച്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും മരങ്ങളും മൃഗങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യും പിന്നെ പല രസകരമായ പല കാഴ്ചകളും കാണാൻ പറ്റും അതുപോലെ പല ആൾക്കാരായിട്ട് ബദ്ധപ്പെടാൻ പറ്റുന്നത് പല ഭാഷക്കാരേയും കാണാൻ പറ്റുന്നു അവരുമായി ഇടപെഴുകാൻ എല്ലാം നല്ല അവസരമാണ് രാത്രി ആകുമ്പോൾ സന്ധ്യാ സമയത്ത് കുറച്ച് മോശം വരുന്ന് പിന്നെ രാത്രി ആയാലും ദോഷമില്ല അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഇന്ട്രെസ്റ് ഉണ്ട് പിന്നെ കൂടുതല് ഫ്രണ്ട്സ് ഉണ്ടെങ്കില് കൂടുതല് യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ട്ടം പിന്നെ ഒന്നിച്ച് ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കില് നല്ല ഇതാണ് കുട്ടികളെല്ലാം കൂട്ടി എല്ലാവരും ഒന്നിച്ചു പോകുമ്പോൾ അതൊരു രസം വേറെ തന്നെ ഓരോ അമ്പലങ്ങളും കാഴ്ചകളും അങ്ങനൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ അതൊരു സുഖം വേറെ തന്നെ പിന്നെ ഇവിടെ തിരുവന്തപുരം തമിഴ്നാട്ടില് കുറച്ച് കൂടുതല് മധുരൈ പളനി അങ്ങനെയൊക്കെ പോകും ദൂരെയാത്ര ഇഷ്ടമാണ് മഴക്കാലം ഇഷ്ടപ്പെടുന്നില്ല മഴക്കാലം എന്നുവച്ചങ്കില് ഫുള്ള് ചെ ചെളിയും അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് മഴക്കാലം ആവുമ്പം മഴക്കാലത്തിനേക്കാളും നല്ലത് ഈ അവസരമാണ് ഇപ്പോഴെല്ലാം കുട പിടിക്കണ്ടല്ലോ ഒന്നാമത് മഴക്കാലത്തിനേക്കാളും ഇപ്പം ഈ അവസരം നല്ലത് ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല സുഖം അവസരമാണ് രണ്ട് മക്കളും മക്കളുടെ മക്കളെല്ലാം കൂട്ടി പോകുമ്പോൾ നല്ല പരമ സുഖം

ഒരു യാത്ര ചെയ്യാനൊന്ന് ഉള്ളത് ഉണ്ട് അയോധ്യയ്ക്ക് കുറെ കൂടുതല് കാണാമല്ലോ അതൊരു ആഗ്രഹം നല്ലോണം ബാലൻസ് ഉണ്ട് പിന്നെ എല്ലാ വർഷവും ശബരിമല യാത്ര എപ്പഴും ഉണ്ട് അത് എല്ലാ വർഷവും വർഷ അപ്പഴ് അപ്പഴ് പോവും കൊല്ലത്ത് നാല് പ്രാവശ്യമൊക്കെ പോകും എല്ലാ വർഷവും പോകുന്നതല്ലേ ഇപ്പം ഉള്ള ആഗ്രഹം അയോദ്ധ്യ ഒര് ട്രിപ്പ് അടിക്കണം പറ്റുകയാണെങ്കില് ഫാമിലിയായിട്ട് അപ്പോൾ കാസർഗോഡിൽ നിന്ന് ട്രെയിൻ ഉണ്ടല്ലൊ കാസർഗോഡ് മുതൽ അയോദ്ധ്യ വരെ ട്രെയിൻ ഉണ്ടല്ലൊ യാത്ര എന്ന് പറഞ്ഞാൽ സുഖകരമായ യാത്രയല്ലേ ഫാമിലി ആകുമ്പം ഏറ്റവും കൂടുതല് അത് ഒര് ആഗ്രഹം ഉണ്ട് അങ്ങനെ

കാശിയിൽ പോകണം

ഒക്കെ ഒര് കറങ്ങല് കറങ്ങിയിട്ട് വരാം മൊത്തത്തില് അയോദ്ധ്യേയിൽ പോയാല് ഇപ്പം എല്ലാ ഭാഗത്തേക്കും പോകണ്ട സൗകര്യം ഉണ്ടല്ലോ അവിടെ പോകണമെങ്കിലും അതിൻ്റെ സൗകര്യം ഉണ്ട് ഇപ്പോൾ ബാംഗ്ലുരൊക്കെ നമ്മൾ ഫുള്ള് കറങ്ങിയിരുന്നു ഫുള്ള് ബാംഗ്ളൂര് മൈസൂര് അതൊക്കെ നമ്മൾ കണ്ടു ഫാമിലി ആയിട്ട് ഒര് ടൂർ അങ്ങോട്ട് പോകുക അയോദ്ധ്യ പിന്നെ ഇരുപത്തിഅഞ്ചിനൊന്ന് തൃശ്ശൂര് പോകാൻ ഉള്ള പരിപാടി ഉണ്ട് തൃശൂർ തൃശൂർ കറങ്ങുന്നതിന് സന്തോഷമെ ഉള്ള് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ആണ് യാത്ര ചെയ്യുന്നത് എനിക്കിഷ്ട്ടം യാത്ര എനിക്ക് രാത്രി പകലൊന്ന് ഇല്ല സന്ധ്യാസമയത്ത് മാത്രമെ ചെറിയ എനിക്ക് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ട് ഉണ്ടെങ്കിലും സന്തോഷമേ ഉള്ളൂ പിന്നെ വാഹനവും സന്ധ്യാസമയത്ത് വാഹനവും ഒട്ടാൻ ചെറിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഒര് പ്രശ്നമില്ല ഏതു സമയത്ത് ഓട്ടം പറ്റും അടുത്തയാത്ര ഇപ്പം നോക്കണം ഇപ്പം ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല അയോദ്ധ്യ ട്രിപ്പിന് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല നല്ലൊരു ഗ്യാപ്പ് വേണമല്ലോ അതായത് പോയിട്ട് വരുമ്പോൾ ഒര് പത്തോ പതിനഞ്ചോ ദിവസമേ ഇതുണ്ടാവു അപ്പോൾ ഫസ്റ്റ് ഒക്കെ പോയാൽ കറങ്ങിയിട്ടല്ലെ വരാൻ പറ്റു അപ്പോൾ കറങ്ങ കറങ്ങിയിട്ട് വരിക അങ്ങനത്തെ ഏർപ്പാടാണ് ഉള്ളത് ശെരിയാക്കാം ശരി